ആ ഓക്കെ

ആരാണ് ഈവ് ടീസിംഗ് എക്സ്പീരിയൻസ് ചെയ്തത് ഓക്കെ ഡയറക്റ്റ് പോലീസ് സ്റ്റേഷൻൽ വന്നാൽ മതിയായിരിക്കും ഓക്കെ മറ്റൊന്നും വേണ്ട ഇവിടെ വന്നിട്ട് ഒരു പരാതി എഴുതി കൊടുത്താൽ മതി വനിത പോലീസ് കാണും അവരുടേൽ കൊടുത്താൽ മതി സ്ഥലത്തിനെന്തേലും എൻക്വയറീസുണ്ടെങ്കിൽ വനിത പോലീസിനെ അറിയിച്ചാൽ മതി പിന്നെ നിങ്ങളുടെ സ്ഥലത്തേക്ക് ഞങ്ങൾ നിങ്ങൾ തരുന്ന റിപ്പോ എഫ്യാ ഐ ആറിനനുസരിച്ചിട്ട് എൻ ഇൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതായിരിക്കും നാളെ വന്നൊരു പരാതി തരൂ അതിന് ശേഷം പറയാം നാളത്തന്നെ ഫസ്റ്റ് ഹിയറിംഗുണ്ടാവും അതിന് ശേഷം പറയാം ഇവിടെ പോലീസ് സ്റ്റേഷൻൽ ഞങ്ങൾ ഫ്രീയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊന്നേൽ അങ്ങനെ അപ്പ്രോച്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുന്നായാലും എടുക്കാം പിന്നെ ഇതൊരു ഈവ് ടീസിംഗിൻ്റെ കേസായത് കൊണ്ട് ഫ്രീയായിട്ട് ഇവിടെത്തന്നെ അവൈലബിളാണ് അത് ചൂസ് ചെയ്തിരിക്കും ചൂസ് ചെയ്യുന്നയാവും നല്ലത് ഇല്ല ഫീ ഇല്ല ഓക്കെ താങ്ക് യൂ